ആ അയ്ക്കര് കുഞ്ഞോളല്ലേ ചേട്ടാ ഞാൻ ഈ നൗഷാദ് വിളിച്ചിട്ട് പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് നമ്മളെ കുഞ്ഞേലുള്ള നൗഷാദ് ആ അതെ ഇത് ആളോട് ഞാൻ പിന്നെ പറഞ്ഞ് ഈ ഫോണിൻ്റെ ബാറ്ററി ഒന്ന് മാറ്റാനാണ് എൻ്റെ ഐ ഫോണ് മറ്റേ എക്സില്ലേ അതിപ്പോൾ ബാറ്ററി ഭയങ്കര കുറഞ്ഞേക്കുന്ന് നല്ലോണം കുറഞ്ഞേക്കുന്ന് അപ്പോൾ അത് മാറ്റാനായി എന്റെ വീട് അടുത്ത് തന്നെ മല്ലാട് പുല്ലിൻ്റെ അടുത്തന്നെ ആൾ നമ്മളെ ഫ്രണ്ടാണ് അപ്പോൾ അവിടുന്ന് പറഞ്ഞ പോലെ പറഞ്ഞതാണ് നമ്മൾ ചെക്കുണ്ട് ആൾക്കൊന്ന് വിളിച്ച് നോക്ക് അപ്പോൾ ഞാൻ നമ്പറ് തന്നു നിങ്ങളെ വിളിക്കുന്ന് അതിപ്പോൾ എത്ര റേറ്റൊക്കെ വരുന്നേട്ടാ

ഡിസ്പ്ലേ മാറിയ ഡിസ്പ്ലേ ആണ് ബാറ്ററി ഇപ്പോൾ ഒരു എൺപത്തിയേഴ് ശതമാനം ആയുണ്ട് അപ്പോൾ തീരെ ചാർജ് നിക്കണില്ല അതുകൊണ്ട് മാറ്റാൻ

അല്ല ഡിസ്പ്ലേ മാറുന്നതാ അല്ല അല്ല അല്ല ഇതിപ്പോൾ എത്രയാവും ബാറ്ററിക്ക് ആ ഒറിജിനൽ എത്രയാവും അയ്യോ പതിനഞ്ചായിരോ ആ ആ പതി എത്ര ദിവസം വെക്കണ്ടി വരും ഫോണ് റെഡിയാക്കാൻ അതെ അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലേ അപ്പോൾ എത്ര എത്ര പറഞ്ഞിപ്പോൾ പതിനഞ്ച് ആ പിന്നെ ഈ ഒറിജിനൽ ഡിസ്പ്ലേയ്ക്ക് എത്ര ഉർപ്യയാവുന്നറിയോ ഡിസ്പ്ലേ മാറ്റണ കാര്യം ചിന്തിക്കണ്ട അല്ലേ ലൈറ്റിപ്പോൾ പുതിയ ഫോൺ വാങ്ങാൻ നമുക്ക് സാമ്പത്തികം ഇല്ലാണ്ടല്ല പക്ഷേ ഇതിൽ കുറെ ഡാറ്റാസുണ്ട് നമുക്കത് കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ പോവേ അതോണ്ടാണ് ആ അത് പിന്നെ ഇതിനീ കേസ് ഏതോ ഒരു ടൈപ്പ് കേസ് ഇട്ടിട്ടുണ്ടെങ്കീൽ ഹീറ്റാണ് കുറയുന്നൊക്കെ പറഞ്ഞിരുന്നു അത് ഏതാന്നറിയോ അതുണ്ടാ അവിടെയുണ്ടാ ഓ അപ്പോൾ അതും നോക്കണ്ടി വരും ഞാൻ എന്തായാലും വരുന്നുണ്ട് ഈടെ ഞായറാഴ്ച ക്ലോസ് ചെയ്യുമോ നിങ്ങൾ ഇക്ക് പണിയുണ്ടപ്പാ ഞായറാഴ്ച മാത്രം ഒന്ന് ഫ്രീയാവുള്ളൂ അതാണൂട്ടാ അപ്പോൾ ഈ ഞായറാഴ്ച ഞാൻ വരാം എനിക്ക് തിങ്കളാഴ്ചക്കുള്ള തന്നാൽ മതി ആ ചേട്ടൻ്റെ പേരെന്താണ് ഉണ്ടാവില്ല അപ്പോൾ ആ ടൈമിൽ അവിടെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ വിളിച്ചിട്ട് വരാം ആ ഓക്കെ ഓക്കെ താങ്ക് യൂ